എനിക്കെന്തോ പെട്ടെന്നൊരു ബിരിയാണി കഴിക്കാനുള്ള മോഹം തോന്നി ഞാനങ്ങനെ ഇവിടെ ഭയങ്കര ഫേമസ്സായിട്ടുള്ള റെസ്റ്റോറൻ്റിൽ നിന്ന് ബിരിയാണി ഓർഡർ ചെയ്തു ബിരിയാണി ഓർഡർ ചെയ്ത് കാറ്ററിങ്കാരൻ പറഞ്ഞ് ഒരു എല്ലാം ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ എന്തായാലും ഫുഡെത്തിക്കാമെന്നു പറഞ്ഞു ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് പെട്ടെന്ന് എവിടെനിന്നോ കടി അതിശക്തമായ മഴയും ഇടിയും മിന്നലൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ എന്തായാലും ഫുഡ് ലേറ്റാകും എന്നൊക്കെ വിചാരിച്ചിരുന്ന് അവർ പറഞ്ഞതിൽ ഒര് അഞ്ചു മിനിറ്റ് മുൻപ് കൃത്യമായിട്ട് ഫുഡ് ഓർഡറെത്തിച്ചു ആൾ ഫുൾ കൊണ്ടു വന്ന കാറ്ററിങ്കാരൻ ഫുൾ നനഞ്ഞ് ആകെ എനിക്കു കണ്ടപ്പോൾ എന്തോ വല്ലാണ്ട് ഒരു സങ്കടം തോന്നിട്ടോ താൻ ചെയ്യുന്ന പ്രവർത്തിയോടുള്ള ആത്മാർത്ഥത എനിക്ക് എത്തിക്കാമെന്ന് പറഞ്ഞ സമയം എല്ലാം കൂടി ഓർത്ത് എനിക്ക് ഫുഡ് കൊണ്ടെത്തിച്ചു ഫുഡ് കൊണ്ടെത്തിച്ച് ഫുഡ്ഡാണെങ്കിൽ അടിപൊളി ഫുഡ്ഡായിരുന്നു എനിക്കാ ഫുഡ്ഡിനെക്കാൾ എനിക്കിഷ്ടമായത് ആളുടെ മനസ്സ് താൻ ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള ഒരു എന്താ പറയുക ഒരു മുൻഗണന താൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയോടുള്ള ഒരു സാറ്റിസ്ഫേക്ഷൻ അതു കൊണ്ട് ഞാൻ എനിക്കെന്തെന്ന് അറിയില്ല വല്ലാത്തൊരു സന്തോഷവും ഇതുവരെ കഴിക്കാത്ത സ്വാദോടെ ഞാൻ ആസ്വദിച്ചാ ബിരിയാണി കഴിച്ചു എന്നെ ആ കാറ്ററിംഗ് കാരനെ ഞാൻ ഇന്നും എന്നും ഓർക്കുന്നു